നമ്മൾ ഒരു ദീർഘ ദൂര യാത്രക്ക് വേണ്ടിയിട്ട് ബൈക്ക് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് പോയിട്ട് ബൈക്ക് സർവ്വീസ് ചെയ്യണം എന്തെങ്കിലും അതിന് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചതിൻ്റെ ബ്രേക്ക് അതുമാതിരി ഓയില് ഇതൊക്കെ കറക്റ്റ ചെയ്തിട്ട് വേണം നമ്മൾ ബൈക്കോടിക്കാൻ തുടങ്ങാൻ മാത്രമല്ല നമ്മളെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്സും കറക്റ്റാക്കി വയ്ക്കണ്ടതാണ് അതിൽ അത്യാവശ്യം വേണ്ട മരുന്നുകളും കോട്ടൺ വല്ല മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ കെട്ടണ്ട തുണികൾ ഇതൊക്കെ നമ്മൾ അതിൽ കരുതി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അത്യാവശ്യം വേണ്ട മരുന്നുകൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കരുതണ്ടതാണ് വെള്ളം എടുക്കണം നമ്മൾ നമക്ക് എന്തെങ്കിലും ഡ്രെസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മടെ കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ഭക്ഷണം ഇടയിൽ നിർത്തി എന്തേലും ഭക്ഷണം കഴിക്കണെമെങ്കിൽ അതൊക്കെ നമ്മൾ എടുക്കേണ്ടതാണ് അതുപോലെ ഒരു ഗ്ലാസ്സ് നമുക്ക് യൂസ് ചെയ്യാം കണ്ണിൻ്റെ ഒക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സ് യൂസ് ചെയ്യാം അതുപോലെ ഹെൽമറ്റ് അത്യാവശ്യമാണ് ബൈക്കിന് അത് നമ്മുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഫൈൻ ഒഴിവാക്കുക എന്നുള്ളൊരു രീതിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യരുത് നമ്മൾക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൂടാതെ നമ്മൾ നമ്മുടെ ഒരു സംരക്ഷണോം എല്ലാം സേഫ്റ്റി മുന്നേ മുൻ നിർത്തിയിട്ട് മാക്സിമം ഒരു സമാധാനമായിട്ടും ഒരത്യാവശ്യം മിനിമം സ്പ്പീഡിലും ഓടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്